ഇന്നത്തെക്കാലത്തെന്ന് പറഞ്ഞാൽ മലയാള ഭാഷ ഉപയോഗിക്കുന്നവര് വളരെ കുറച്ചാണ് ഉള്ളത് എന്നാലും നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ ചുറ്റുപാടുള്ള ആളുകളാണെങ്കിൽ തന്നെ മലയാള ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാലും മലയാള ഭാഷ പറയുന്നേൻ്റെ ഇടയ്ക്ക് ഇടയിലൂടെ നമ്മള് ഇംഗ്ലീഷ് വേഡുകളൊക്കെ പറയാറുണ്ട് എന്നാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ സുഖം ഒക്കെ തന്നെയാണ് പിന്നെ ആ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കില് അയില് ഒരു സ്പെല്ലിങ് മാറിയാൽ തന്നെ വേറൊരു വേഡായി വേറൊരു അർത്ഥായിട്ട് മാറും എന്നാ മലയാള ഭാഷക്ക് അങ്ങനെയുള്ള ഒര് പ്രശ്നവും ഇല്ല നമ്മൾക്ക് അക്ഷരങ്ങൾ മാറിയാലോ വേഡ് വെർബ് ഇതൊക്കെ നോക്കീട്ട് വേണം ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്നാൽ മലയാളത്തിന് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് തോ എങ്ങനെയുള്ള എങ്ങനെ വർത്തമാനം പറയണെങ്കിലും പറയാം അതിനൊന്നും മലയാള ഭാഷയ്ക്ക് ഒര് കുഴപ്പമൊന്നും ഇല്ല എന്ന ഇന്നത്തെക്കാലത്തൊക്കെ മലയാള ഭാഷ എല്ലാവരും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്ത്കയാണെങ്കിത്തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടാൽ മതി മലയാള മീഡിയയിൽ ചേർത്തരുത് എന്നൊക്കെ പറഞ്ഞ് പ്രൈവറ്റ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിലൊക്കെയാണ് കുട്ടികളെ പഠിക്കാൻ അയക്കുന്നത് അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെയാണ് മാറേണ്ടത് എന്നാൽ മലയാള ഭാഷ മലയാള ഭാഷയാണ് നമ്മടെ കുട്ടികളെല്ലാം പഠിച്ച് വളരേണ്ടത് ബ്ര് ബ്രിട്ടീഷ്കാരാണ് നമ്മുടെ നാട്ടിലേക്ക് ഇംഗ്ലീഷ് ഭാഷ എന്നത് കൊണ്ട് വന്നത് അതുവരെ നമുക്ക് മലയാള ഭാഷയോട് നല്ലൊരു ബഹുമാനമായിരുന്നു ഉണ്ടായിരുന്നത് എ ഇൻ എന്നാൽ ഈ കാല ഈ കാലഘട്ടത്തിലാണെങ്കിൽ മലയാള ഭാഷയോട് ഒരു പുച്ഛമാണ് വെറുമൊരു പുച്ഛം മാത്രാണ് ഉള്ളത്